ഹലോ ആ ഞാന് ജോസഫാണല്ലോ സാറേ ആ താങ്ക്സ് സാറേ ആ എന്താണ് സാറേ വിളിച്ചത് ആ എന്താണ് ആ താങ്ക് യൂ ആ താങ്ക് യൂ സാര്

സാറേ ഞാനത് വളരെ കഷ്ട്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഞാനത് അത്രയും ഒപ്പിച്ചെടുത്തത് ആ ആ ഉം ആ

സ ഞാനേ സാറേ ഇതൊക്കെ രാത്രിയൊക്കെ ഇരുന്നാണ് ഞാന് പണി ഒത്തിരി കഷ്ട്ടപ്പെട്ടാണ് ഇത് ചെയ്തത് അതുകൊണ്ട് അപ്പോൾ ഇനി അങ്ങനൊക്കെ ചെയ്യാന് പറ്റും ആ എന്റെ കഴിവിന്റെ പരമാവധി ഞാന് ചെയ്യാം പിന്നെ സാറേ സാറേ എനിക്കെ ഒത്തിരി ചിലവ് വരുന്നുണ്ട് അതുകൊണ്ട് സാറ് ചാര്ജ്ജൊക്കെ കൂട്ടി തരണം കേട്ടോ പിന്നെ ആ ആ ആ താങ്ക്സ് സാര് ആ ഉവ്വ ഉവ്വ സാറേ വളരെ നന്ദിയുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ ഉം സാറേ പിറ്റേന്ന് ഉറപ്പായിട്ടും ചെയ്യാം ഞാന് എന്റെ പരമാവധി ശ്രമിക്കാം ഏ ഉം

ആ അതെയതെ ആ ഉവ്വ ഉവ്വ ഉവ്വ ഉവ്വ ആ

ആ ഉവ്വ ഉവ്വ സാറേ അതേ ഞാന് എന്റെ കടമയല്ലേ ചെയ്തത് സാറാവശ്യപ്പെട്ടു ഞാനത് എന്റെ കടമയുടെ പരമാവധി ഞാന് ചെയ്യുകയും ചെയ്തു അതല്ലേ അതിനകത്ത് ഉള്ളു ആ താങ്ക് യൂ സാര്

ആ അങ്ങനെ സാറേ നാളെ വരാം കേട്ടോ നാളെ ആ ഞാന് മീറ്റിങ്ങിനു വന്നേക്കാം